ഹലോ ആണ് ഓക്കേ ഓക്കേ ഇവിടെ പ്രിസർവേറ്റിവ്സൊന്നും ആഡ് ചെയ്യുന്നില്ല ഇവിടെ ഫുൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വേണേൽ വിസിറ്റ് ചെയ്യാം ഞങ്ങളായിട്ട് ചെയ്യുന്നത് തന്ന ഇവിടെ അങ്ങനെ അല്ല ഇവിടെ പ്രിസെർവേറ്റിവ്സൊന്നും ആഡ് ചെയ്യാറില്ല ആണ് സെർട്ടിഫൈഡ് ആണ് ഒരു ദിവസം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു നോക്കൂ ആ ഡെലിവറി ചെയ്തേരാം ഫ്രീ ഡെലിവറിയാണ് അതൊക്കെ ചെയ്ത തരാം ഡെലി നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുമ്പോൾ ഓക്കേ ഓക്കേ

ഒരു ടു ത്രീ ഡേയ്സ് എടുക്കോരിക്കും ഇവിടെ അടുത്താണെങ്കിൽ ഒരു വൺ ഡേ അത്രേ എടുക്കൂ ദൂരത്താണെങ്കിൽ ടു ഡേ

ഡെലിവറി കൺഫേം ചെയ്തിട്ട് വിളിച്ചോളാം